ഞാൻ സാധാരണ ഒരു ഗ്രാമത്തില് ജീവിച്ച് വളർന്ന ഒരു കുട്ടി ആയത് കൊണ്ട് തന്നെ പട്ടണത്തിലേക്ക് പോകുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയെന്ന് പറയുമ്പോൾ ശാന്തമായ അന്തരീക്ഷവും വയലുകളും നല്ല വായുവുമൊക്കെ ശ്വസിച്ചിരിക്കാൻ കഴിയും പക്ഷെ പട്ടണത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് ശരിക്കും വിപരീതമായിട്ടുള്ള കാര്യാണ് നടക്കുന്നത് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് വളരെ ഗതാഗതവും ശബ്ദവും വായു മലിനീകരണവും എല്ലാം കൊണ്ടും നമ്മള് സാധാരണ ഗ്രാമത്തില് ജീവിച്ച ഒരാൾക്ക് പെട്ടന്ന് പട്ടണത്തിലേക്ക് പോയി ജീവിക്കുകയെന്ന് പറയണത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ റിലേറ്റീവ്സിൻ്റെ കുറേ വീടുകളൊക്കെ പട്ടണത്തിലാണ് ഞങ്ങൾ ഗ്രാമത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ശുദ്ധവായു ശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് അതും വയലുകളും എല്ലാം നല്ല കാഴ്ചകളും പച്ചപ്പുമൊക്കെ കണ്ടിരുന്നു പെട്ടന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേര നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എനിക്ക് അല്ലർജീൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പൊടിയും ഒക്കെ തട്ടിയിട്ട് അല്ലർജിയൊക്കെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്